മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവമെന്നു പറയുന്നത് അവർക്ക് ചാകര കിട്ടുന്ന സമയങ്ങളിലാണ് അവരുടെ ഉത്സവം കാരണമെന്നായെന്നു ചോദിച്ചാൽ അവർക്കു ചാകര കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഉത്സവം പോലെ അവരുടെ വീടു കൊണ്ടു നടക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകാരണം മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവമെന്നു പറയുന്നതെന്നതാണ് ചാകരയാണ് പിന്നെ അവർ പിന്നെ ഈ വള്ളംകളി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ വരികയും എടുക്കുകയും ടുക്കോക്കെ ചെയ്യും പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിലൊക്കെ മത്സ്യത്തൊഴിലാളികളല്ലേ വന്ന് എല്ലാവരെയും സഹായിക്കുകയും എടുക്കുകയും എത്ര പേരുടെ ജീവനുകൾ അവരുടെ കൈകളിലായിരുന്നു അവരങ്ങനെ ഒക്കെയുള്ള ഉപകാരങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവമെന്നു പറയുമ്പം അവർക്ക് ചാകര കിട്ടുന്നത് കടലിൽ ചാകര വന്നു കഴിയുമ്പോഴത്തേനുമാണ് അവരുടെ കുടുംബങ്ങളൊക്കെ പോറ്റാനായിട്ടുള്ള ഇതു ചാകരയിൽ കൂടി അല്ലേ അവർക്കു മീൻ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഉത്സവമെന്നു പറഞ്ഞ് അവർ ഉത്സവം കൊണ്ടാടാനായിട്ടു പറ്റുകയുള്ളൂ മത്സ്യത്തൊഴിലാളികൾ നല്ല ഒരുമയോടെ അവർക്ക് അവർക്കിപ്പോൾ ഒരു ചാകര വന്നു കഴിഞ്ഞാൽ അവൾ അവർ മറ്റുള്ള വള്ളക്കാരെയും വിളിക്കും അങ്ങനെയാ നമ്മളെ ബൈബിളിൽ തന്നെ ഈശോ പറഞ്ഞിരിക്കുന്നത് ഈശോ ശെമയിലൂടെ പറഞ്ഞില്ലേ നീ വലയിങ്ങോട്ട് എറിയുമ്പോൾ വല എറിഞ്ഞപ്പോഴത്തേന് കീറുന്ന രീതിയിലല്ലേ മത്സ്യങ്ങളെ കിട്ടിയത് അതുപോലെ അന്നേരം അവരും മറ്റുള്ള വള്ളക്കാരെയും ആംഗ്യം കാണിച്ചു വിളിക്കുമായിരുന്നു വരാൻ അവരെ സഹായിക്കാനായിട്ട് അതുപോലെയാണ് മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളികളെന്നു പറഞ്ഞാൽ അവർ ഭയങ്കര ഒരുമയുള്ളൊരു ഇതാ നമ്മൾ അതു കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈയവരുടെ ഒക്കെ മേഖലകളിലേക്ക് നമ്മൾ ചെല്ലണം ഈ കടലിൻ്റെ ഇങ്ങനെ മറ്റേ മീൻ പിടിക്കാൻ പോകുന്ന പോകുമ്പോഴോ വള്ളം ഒക്കെ അവർ ഈ തിരയിങ്ങനെ അടിച്ച് അങ്ങോട്ടു കയറുമ്പോൾ വള്ളം കയറ്റുമ്പോൾ ചിലപ്പോൾ കയറാൻ പാട് വരുമ്പം അവർ മറ്റുള്ളവർ ഓടിച്ചെന്നു വള്ളത്തിൽ പിടിച്ച് അവരത് കരക്കു കയറ്റി കരക്കു കയറ്റ അവരുടെ ആ ഒരുമ അവർക്കിപ്പം കൂടുതൽ മീൻ കിട്ടുകയാണേൽ അവർ മറ്റുള്ളവരെ വിളിച്ചു മറ്റുള്ളവരുമായിട്ട്

അപ്പോൾ അവർക്കു കൂടുതൽ മീനുകൾ കിട്ടുമ്പോഴത്തേനും അവർക്കത് ഉത്സവമാണ് മത്സ്യത്തൊഴിലാളികളിലൂടെ ഉത്സവമെന്നു പറയുന്നത് അവരുടെ ചാകരയാണെന്നാണ് ചാകരയാണ് ചാകരയാണെന്നല്ല മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവം ചാകരയാണ് അതുപോലെ തന്നെ അവർക്ക് അവരുടെ വീടുകളിൽ ആണെങ്കിലും സാധനങ്ങളെല്ലാം മേടിക്കാനും എടുക്കാനും ഈ ചാകര കിട്ടിയെങ്കിൽ മാത്രമെ അവർക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഈ വലയൊക്കെയാണെങ്കിൽ അവർ കടലിലേക്ക് ഇടുമ്പോഴത്തേനും ഓ അതു നല്ല ചാകരയുള്ള നല്ല സ്ഥലം നോക്കിയാണ് അവരപ്പോൾ ചാകര കൂടുതൽ വരുമ്പോൾ അവർ മറ്റുള്ള വള്ളക്കാരെ വിളിക്കുകയും ആ വള്ളക്കാരെല്ലാവരും കൂടെ വന്നു നല്ല ഒരുമയോടെയാണ് അവരാ മീനെ വള്ളത്തിലേക്കു കയറ്റുന്നതും കൊണ്ടു വരുന്നതും അവർ കരക്കടിപ്പിക്കുന്നതും പിന്നെ അതു മത്സ്യ മത്സ്യങ്ങൾ അവർ ലേലത്തിലൂടെയാണ് അവർ വിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ അത് ഒരാളും രണ്ടുപേരും വെച്ചൊന്നുമല്ല അവരാ വള്ളത്തെ ത്തെ പേര് കൂട്ടായിട്ട് പോയിട്ടുണ്ടാ ആ കൂ അവർ വരുമ്പോൾ ഒരുപോലെയാണ് അവിടെ നിന്ന് പിന്നെ അതിൻ്റെ കാ അവർക്കു കിട്ടുന്ന സാമ്പത്തികം ഒക്കെ അവരൊരു പോലെ ഷെയർ ചെയ്യുകയും അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരിയൊത്തിരി ഇത് മത്സ്യത്തൊഴിലാളികളെന്നു പറഞ്ഞാൽ ന അവരുടെ ഒരു കൂട്ടായ്മയാണ് അത് നമ്മൾ കണ്ടു പഠിക്കണം എന്നു വെച്ചാൽ അവർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരാ ഒരു ഒരുമയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ പോകുന്നതും മത്സ്യത്തിനാണെ തന്നെ പോകുന്നതു തന്നെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലേ അവർ വള്ളത്തെ ഒറ്റപ്പെട്ടല്ലല്ലോ പോകുന്നത് ഏത് ആര് വളളമിറക്കിയാലും കടലേക്ക് ഇറക്കിയാലും അവർ നല്ലതുപോലെ പ്രാർത്ഥിച്ച് അതിനകത്തൊരു രണ്ട് പേര് കാണും കൊച്ചു വളളവാണേ രണ്ടോ മൂന്നോ പേര് കാണും അതുപോലെ വലിയ വള്ളം ആണെങ്കിൽ അവർ നല്ല കൂട്ടമായിട്ട് നല്ല ഗ്യാ നല്ല ഇതായിട്ടു ഗ്യാസും അവർക്കു വേണ്ട സാധന സാമഗ്രാഹികളും ആഹാരം കഴിക്കാനുള്ള അരി ഇങ്ങനെയുള്ള എല്ലാം ആയിട്ടാണ് അവർ കടലിലേക്കു പോകുന്നത് പോയി അവർ എത്ര നല്ല ചാകരയൊ അവരെത്ര ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന നല്ല ചാകരയൊക്കെ കിട്ടി കഴിഞ്ഞ് അവർ കടലിൽ മ അവർ തിരിച്ചു വരുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവമെന്നു പറഞ്ഞു കഴിഞ്ഞാലവരുടെ ചാകരയാണ് കാരണമോ എന്നായെന്നു വെച്ചാൽ അവരുടെ മക്കളൊക്കെ ആഹാരങ്ങൾ വയറു നിറച്ച് കൊടുക്കാനും എടുക്കാനും ഒക്കെ ഉള്ളത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ